ഇപ്പോൾ പ്രിയ പ്രിയങ്കരനായിട്ടുള്ള മലയാളി എഴുത്തുകാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തച്ഛനാണ് അപ്പം എഴുത്തച്ഛന്റെ തൂലികയിൽ നിന്ന് വന്ന പലതരം കവിതകളും രച രചിച്ചതൊക്കെ നല്ല രീതിയിലുള്ള നമുക്ക് മലയാളികളിൽ ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമുക്കെല്ലാ കാര്യങ്ങളും വായിക്കാനും എല്ലാറ്റിനും കൂടി വേണ്ടിയിട്ടാണ് എഴുത്തച്ഛനങ്ങനത്തെ പല രീതിയിലുള്ള കവിതകളൊക്കെ രചിച്ചത് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒ എൻ വി കുറുപ്പ് പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ മലയാള ഭാഷയെത്തന്നെ പ പല രീതിയിലും പല കാര്യങ്ങളൊക്കെ രചിച്ച് വരുന്ന പല ആൾക്കാരുണ്ട് അപ്പം അവരുടെ രചനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള രചനകളൊക്കെ ആണ് നമുക്കത് വായിച്ച് കേട്ടിരുന്നുപോകും പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് ഓരോ കവി കവികളെയും കവിതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കാനുണ്ട് അപ്പം അഞ്ചാം ക്ലാസ്സിലത്തെ ഒരു കവിത നമുക്ക് സിനിമയിലൊക്കെ വന്നു വജ്രം എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് രചിച്ചിട്ടുമുണ്ട്